എന്നെ സംബന്ധിച്ച് ശാസ്ത്രീയ സംഗീതമാണ് കുറച്ചും കുടി ടഫ് ആയിട്ട് കാരണം ഞാൻ ശാസ്ത്രീയ സഗീതം പഠിച്ചതാണ് നാല് അഞ്ച് കൊല്ലം അപ്പോൾ എനിക്ക് അതുകൊണ്ടു അറിയാം എങ്ങനെയാന്ന് രണ്ടും എനിക്ക് എനിക്ക് ഇഷ്ട്ടം ശാസ്ത്രീയ സംഗിതം കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഒരു അടുത്താണ് എന്ന പാട്ടിൻ്റെ ഒരു ബെയ്സ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ സംഗീതമാണ് നമുക്ക് അറിയാം സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പാട്ട് പിന്നെ നമ്മൾ പഠിച്ചത് ഏത് ഒരു ചെറിയ കൊച്ചും ആദ്യം ഒരു മാഷിൻ്റെ അടുത്ത് ദക്ഷിണ വെച്ച് പാട്ട് പാടാൻ തുടങ്ങുമ്പോളും ഇത് സർ മാഷ് താളം പിടിച്ച് താ തുടയിൽ തൊട്ടാണ് സാ രീ ഗാ മാ പാ ദാ നീ സാ സാ നീ ദാ പാ മാ ഗാ രീ സാ ഇങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുക അതുകൊണ്ടു തന്നെ അത് ഒരു ഇപ്പോഴും ശാസ്ത്രീയ സംഗിതംന്ന് പറയുമ്പം ആ ഒരു ലെവലിൽ ആണ് വരുക പിന്നെ ഒരുമാതിരി പെട്ട എല്ലാ സിനിമകളിലും ശാസ്ത്രീയ സംഗീതത്തെ ബെയ്സ് ചെയ്തിട്ടാണ് ആ പിന്നെ ആ ഉള്ളത്ത് ഇപ്പം മോഹൻലാലിൻ്റെ ഒരു പഴയ പഴയ സിനിമയുള്ളതിൽ ദേവസഭാതനം എന്ന് പറഞ്ഞ് തുടങ്ങി ആ ഒരു അത്രേം ഒരു ലെവലാണ് ആ പാട്ട് മൊത്തോം പാടി തീർക്കാൻ നമുക്ക് കണ്ടാൽ അറിയാം ഒക്കെ ശാസ്ത്രീയ സംഗിതം ആണ് അത് കേൾക്കുന്നവർക്ക് മനസ്സിൽ ആകും ശാസ്ത്രീയ സംഗിതം അത്രേം ടഫ് ആണ് എന്ന് മനസ്സിലാകും സംഗിതം അത്രെയും ടഫാണ് അതുപോലെത്തന്നെ അതുപോലെത്തന്നെ ശാസ്ത്രീയ സംഗിതം പഠിക്കുമ്പോഴുള്ള ഏറ്റവും നല്ല ഗുണംന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിന് നല്ല ധാരണ ഉണ്ടാകും ഏത് പാട്ടാണ് നമ്മൾ എന്താണോ പാടാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പാടാൻ പോകുന്നതിതിനെ പറ്റിയുള്ള നല്ല ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകും അതോണ്ട് തന്നെ ഇപ്പോൾ ഉറപ്പ് ആയിട്ടും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ഏത് സ്റ്റേജിൽ വേണോ പാടാൻ പറ്റും ഇതാണ് ശാസ്ത്രീയ സംഗിതം പഠിച്ച് കഴിഞ്ഞാൽ സാധാരണ സംഗിതം കുഴപ്പമില്ല ബട്ട് ഐ പ്രിഫർ മോർ തെൻ ശാസ്ത്രീയ സംഗിതാണ് പിന്നെ ഇപ്പോഴത്തെ പാട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ വെറുതെ ആയി ഇപ്പോഴത്തെ പാട്ടിൽ എന്താ കുറെ മ്യൂസികെന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല പണ്ടത്തെ പാട്ടുകളിലാണ് എന്തുകൊണ്ടും നല്ലത് എനിക്ക് തോന്നുന്നത്ത് നല്ലത് അതാണ് എൻ്റെ അഭിപ്രായം